എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ ഷാഫി ആണ് അയാളുടെ മാപ്പിളപ്പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടൊക്കെ ഞാൻ വളരെയധികം കേൾക്കാറുണ്ട് നല്ല പാട്ടുകളാണ് കേൾക്കാൻ ഇമ്പമുള്ള പാട്ടുകളാണ് ഇവിടെ പാട്ടുകാരൻ ഇവിടെ വയനാട്ടിൽ വന്നപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഷാഫിക്ക വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അടിപൊളി പാട്ടുകാരനാണ് മാപ്പിളപ്പാട്ടൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ പിന്നെ പാടും പിന്നെ ഹിന്ദി സോങ്ങ്സ് ആണ് മെയിൻ ഹിന്ദി സോങ്ങ്സ് അടിപൊളിയാണ് പാടുന്നത് കേൾക്കാനൊക്കെ അതുകൊണ്ടാണ് ഹിന്ദി സോങ്ങ്സാണ് എനിക്ക് ഏറ്റവും താല്പര്യം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏറ്റവും താല്പര്യം എനിക്ക് ഹിന്ദി സോങ്ങ്സ് പാടാനാണ് ശ്ശേ കേൾക്കാനാണ് പിന്നെ അതിൻ്റെകൂടെ ഞാൻ ചെറുതായിട്ട് പാടുകയും ചെയ്യും കേട്ടോ അത്രയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷാഫിക്കയാണ്